ഹലോ ഇത് ലാൻഡ്ലൈൻ നമ്പറല്ലേ നമ്മുടെ വീടിനടുത്ത് ഈയിടെ മഴ ശക്തമായൊരു മഴ കാരണം നമ്മളിവിടുത്തെ പോസ്റ്റ് ഒന്ന് മറിഞ്ഞ് വീണായിരുന്നു അപ്പം നമുക്ക് ഈ കുറേ നാളായിട്ടിങ്ങോട്ട് നെറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഫോൺ വിളിക്കാനും പറ്റുന്നില്ല അതേപോലെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് സോൾവ് ചെയ്ത് തരാമോ എപ്പോഴാണ് നിങ്ങൾക്കൊന്ന് വരാൻ കഴിയുന്നത് ഒന്ന് അതൊന്ന് പറയാമോ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് എളുപ്പം ഒന്ന് സോൾവ് ചെയ്ത് തരാമോ ഇവിടെ കുറേ വീടുകളും കാര്യങ്ങളും ഇതേ പ്രശ്നം തന്നെ അനുഭവിക്കുന്നുണ്ട് ഒരു പോസ്റ്റിൽനിന്ന് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ പോയിരിക്കുന്നത് ഒന്ന് കാര്യമായിട്ട് ഒന്ന് പരിഗണിക്കണം